വാണിജ്യവും വ്യാപാരവും മലയാള ഭാഷയുമായി വളരെ അടുത്ത് കിടക്കുകയാണ് വ്യാപാരവും വാണിജ്യവും ചെയ്യുന്നതിന് മലയാള ഭാഷയുടെ പങ്ക് വളരെ വലുതാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്ടിന് അതിൻ്റെതായ മൂല്യവും പോസിറ്റീവ് കാര്യങ്ങളും മ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭാഷകൾ വളരെ അനിവാര്യമാണ് ഇപ്പോഴത്തെ കാലത്തെ പരസ്യങ്ങളിലൂടെയാണ് എല്ലാവർക്കും പ്രൊഡക്ടുകൾ പരിചയപ്പെടുത്തുന്നത് വാണിജ്യവും വ്യാപാരവും കൂടുതലായി നടക്കുന്നത് പരസ്യങ്ങളിലൂടെ ആണെങ്കിൽ പോലും വീഡിയോ വീഡിയോ പോലെ തന്നെ പ്രാധാന്യമുണ്ട് അതിൻറ്റേതായ ഭാഷകൾക്കും ഒരു ഭാഷയിലൂടെയാണ് നമുക്ക് അതിൻറ്റേതായ ആ ഒരു വിൽക്കാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ഉൽപ്പന്നം അതിൻ്റെ മൂല്യങ്ങളെ കുറിച്ചും നല്ല ഗുണങ്ങളെ കുറിച്ചും മറ്റുള്ള വരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഭാഷ എന്നത് വളരെ ഇന്നത്തെ കാലത്ത് വളരെ അനിവാര്യമായ കാര്യമാണ്